ഹലോ ആ ആ സാറേ

അതിൻ്റെ എനിക്ക് താൽപ്പര്യം ഉണ്ട് പക്ഷെ എനിക്കതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയണമല്ലോ അതിൻ്റെ ഡീറ്റെയ്ൽസ് ആ

ആ ആ

മ്മ് മ്മ്

ആ അത് ശരി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ആ ആ അപ്പം എനിക്ക് അപ്പം നമുക്ക് ഇതുകൊണ്ട് ഉള്ള ഈ ഇതിനകത്ത് ചേരുന്നത് കൊണ്ടുള്ള ആ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ നമുക്ക് ഇതിൽനിന്ന് എന്തെങ്കിലും രോഗങ്ങൾ വന്നുകഴിഞ്ഞാലോ ഒരു ആ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ ആ ഓക്കേ ആ ആ

ഓ അതുശരി ഇപ്പോൾ ഞാനേ ഇടയ്ക്ക് എനിക്ക് വേറൊരു സംഘടനയിൽ ചേർന്നിട്ടുണ്ടേ അത്കൊണ്ടാ ഞാൻ ചോദിച്ചത് എനിക്കിത് കൊണ്ട് അതിനെക്കാട്ടിയും കൂടുതൽ ബെനിഫിറ്റ് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആഹാഹാ ആ

ഇത് ഓക്കെ ഓക്കെ ആ ഇത് എത്രകാലം കൊണ്ട് ഓക്കെ ഓക്കെ എത്രകാലം കൊണ്ട് നിങ്ങൾ ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് അതിൽ എത്രകാലം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ അത് ശരി ആ ആ ആ മ്മ് അപ്പോൾ ഇതിനകത്ത് ആ അത് ശരി ആഹാ ആ ആ ഉണ്ട് നമുക്ക് ഉണ്ടെങ്കിലെ ഇതിനകത്ത് ചേരാൻ താൽപ്പര്യം ഉണ്ട് ആ ആ അപ്പോൾ ഇതിനകത്ത് ഇനി ഇപ്പോൾ ചേരുന്നതിന് മറ്റ് മറ്റ് എന്തെങ്കിലും തടസ്സങ്ങൾ വല്ലതും ഉണ്ടോ ഒന്നും ഇല്ല ആ അപ്പം അതിനകത്ത് ആ അതുശരി ആ

ഓക്കെ ഓക്കെ ഓക്കെ അല്ല ഹലോ ഹലോ ആ എനിക്ക് എനിക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ സമയം എങ്ങനെയാണ് എത്രമണിക്കാണ് തുടങ്ങുന്നത് എത്രമണിക്ക് അവസാനിക്കും

ആ എത്തിയാൽ മതി അതുശരി എല്ലാ എങ്ങനെയൊക്കയാ അതിൻ്റെ ആ ഇത് എല്ലാ ആഴ്ച്ചയിലുമാണോ അതോ മാസത്തിലൊരു പ്രാവശ്യം ആണോ എല്ലാ ഞായറാഴ്ച്ച ദിവസവാ ഓ അതുശരി ആ അപ്പോൾ ഈ ഞായറാഴ്ച്ച ദിവസം മറ്റ് ലേറ്റ് നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ

അതുശരി ആ ആ ആ അപ്പോൾ ഫൈൻ അയക്കുന്ന അങ്ങനെയൊരു പ്രശ്നമേ ഉള്ളൂ എന്നാലും ഇത് സ്ഥിരമായിട്ട് എത്ര പ്രാവശ്യം വരെ വരാതിരിക്കാം ആഹാഹാ ആ ആ അതുശരി അത് എത്ര പേരുണ്ട് ആ കൂടുതൽ ആൾക്കാരെ ചേർക്കുമോ ഇല്ല ഇത് ഫിക്സ് ആ അതുശരി ആ ആ ഇരുപത് പേരെയാണ് അനുവദിച്ചിരിക്കുന്നത് ആഹാ ആ ഓ ഓക്കെ ഓക്കെ ശരി എന്നാൽ